ഹലോ ഇത് വാണി കോക്കനട്ട് ഓയിൽ മിൽ അല്ലേ ആ ഞാൻ ചിത്ര എന്ന് ആയിരുന്നു എൻ്റെ പേര് കഴിഞ്ഞ ദിവസം ഞാൻ അവിടുന്നൊരു വെളിച്ചെണ്ണ മേടിച്ചായിരുന്നു ഒരു ലിറ്ററിൻ്റെ ഒരു വെളിച്ചെണ്ണ മേടിച്ചായിരുന്നു അത് നിറച്ചും മായം ആണല്ലോ ഞാൻ അങ്ങനെ അവിടെ തന്നെ കൊപ്ര ആട്ടി നിർമ്മിക്കുന്ന എണ്ണയാണ് അറിഞ്ഞു കൊണ്ടാണ് അവിടെ വന്ന് വാങ്ങിയത് പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് ഉപയോഗിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ എണ്ണ എണ്ണയിൽ നിറച്ചും മെഴുക് പൊങ്ങി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ ശുദ്ധമായി കൊടുക്കുന്ന ആണെങ്കിൽ അത് എങ്ങനെയാണ് അതിൽ മായം വരുന്നത് അതിൽ നിറച്ചും മെഴുക് ആയിരുന്നല്ലോ അല്ല അല്ല ഞാൻ അവിടെ തന്നെ സപ്ലൈ ചെയ്യുന്ന ഒരാളിൽ നിന്നാണ് വാങ്ങിയത് ഈ നൂറ്റി നാൽപ്പതും നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റമ്പത് രൂപക്ക് ഒക്കെ വിൽക്കുന്ന നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉള്ള കമ്പനി കാര്യങ്ങൾ എനിക്ക് അറിയാം അപ്പോൾ ഞാൻ ഇത് പോലെ നല്ല ശുദ്ധമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വാങ്ങിയത് പക്ഷെ ഞാൻ അതിൽ മെഴുക് തന്നെ ആണ് കണ്ടത് അപ്പം നിങ്ങൾ പിന്നെ അവിടെ തന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആണോ ഈ ചക്കിൽ ആട്ടി കൊടുക്കുന്നത് എല്ലാം ചെയ്യുന്നത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് അവിടെ നേരിട്ട് വന്നാൽ അത് കാണാൻ സാധിക്കുമോ എൻ്റെ അടുത്തുള്ളവരും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഈ വാണി കോക്കനട്ട് ഓയിൽ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പക്ഷെ ഞാൻ ഉപയോഗിച്ച് വരുമ്പോൾ ഇതിൽ ഒരു ആ മെഴുകിൻ്റെ അംശം കണ്ടത് കൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങളെ വിളിക്കുന്നത് അപ്പോൾ എനിക്കത് ഇത് നിങ്ങൾ ചേർക്കുന്നണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ അപ്പം മറ്റ് രോഗങ്ങൾ ഒന്നും മറ്റ് ഒരു മറ്റ് രോഗികൾക്ക് ഒന്നും ഇത് ഉപയോഗിച്ച് വേറെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആണ് ഞാൻ ചോദിക്കുന്നത് ഇത് സത്യസന്ധമാണ് തന്നെ ആണല്ലോ അല്ലേ നിങ്ങൾ ഈ തേങ്ങ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് തേങ്ങ എവിടെ നിന്നാണ് ശേഖരിക്കുന്നത് ആ അപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ടോ എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഇപ്പം ഞാൻ വിളിച്ച് നേരിട്ട് അന്വേഷിച്ചത് അപ്പോൾ ഞാൻ അവിടെ നേരിട്ട് നിങ്ങളുടെ കമ്പനി വന്ന് തന്നെ ഞാൻ ഇനി പർച്ചേസ് ചെയ്തോളാം എന്നാൽ ഓക്കെ